ജൈവവാതക പ്ലാൻറുകൾ ഒരു തരം നല്ലൊരു പ്ലാന്റ് ആയാണ് ഞാൻ കണക്കാക്കുന്നത് കൃഷി ചെയ്യാൻ ആവശ്യമില്ലാത്ത കൃഷി ചെയ്യാൻ സ്ഥലമില്ലാത്ത മനുഷ്യരെ ഒരു കൃഷിക്കാരനാക്കി മാറ്റുന്ന ഒരു സംഭവമാണ് ഈ ജൈവവാതക പ്ലാൻറുകൾ ഇത് ബയോഗ്ലാസ് ബയോഗാസ് പ്ലാൻറുകൾ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ജൈവവാതക പ്ലാൻറുകൾ ഊ നല്ല ഫലഭൂയിഷ്ടമുള്ള കായ് ഫലങ്ങൾ നമുക്ക് തരുന്നതാണ് ഇത് പൊലൂഷൻ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഒരു ഇതും ഉണ്ടാക്കുന്നില്ല മുഴുവനും ജൈവമാണ് ജൈവം ജൈവവാതക പ്ലാൻറ്റുകൾ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നു അത്രക്കും നല്ല വൃത്തിയുള്ള ഫലഭൂയിഷ്ടമുള്ള പച്ചക്കറികളാണ് എന്നതാണ് ഈ ജൈവവാതക പ്ലാൻറ്റുകൾ എന്നത്കൊണ്ട് അർത്ഥമാക്കുന്നത് മനുഷ്യൻ്റെ ആരോഗ്യത്തെയും ഇത് ഫലഭൂയിഷ്ടിക്കുന്നു